ഹോളി ട്രാവൽ ഏജൻസി ആണോ ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് ഇന്ന് ഇന്ന് നമുക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ രാവിലെ ഞാൻ ഡ്രൈവറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഡ്രൈവർ ഇത്രയും നേരമായിട്ട് അറ്റൻ്റ് ചെയ്യുന്നില്ല നിങ്ങളെന്തുവാ പ്രതീക്ഷിക്കുന്നതെന്തുവാ മനസ്സിലായില്ല ഞങ്ങൾക്ക് ഇന്ന് പോവുകയും വേണം അപ്പം വേറൊന്നും അല്ല ഡ്രൈവറെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ട്രിപ്പ് പോയേ പറ്റത്തുള്ളു നിങ്ങൾ എന്താ ചെയ്യുന്നേ അല്ല പുള്ളി കോൾ എടുക്കുന്നില്ല കാരണം എന്നു വച്ചാൽ പുള്ളിയൊന്ന് കാൾ എടുത്ത് കാര്യം പറഞ്ഞാൽ പുള്ളി വേറൊരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വിട്ടുതന്നാൽ വിട്ടുതന്നാൽ നമുക്കിപ്പം ഇത്രയും നേരം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പുള്ളി ഞങ്ങൾ എന്താണെന്നറിയുമോ ഒരു വൺ അവർ ആയിട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ തീരുമാനം എന്താണെന്ന് അറിയത്തില്ല കാരണം ഞങ്ങൾക്കിന്ന് പോയെ പറ്റുള്ളു കാരണം എന്നു വച്ചാൽ ആൾറെഡി ഞങ്ങൾ ക്യാഷ് പേ ചെയ്തതാണ് നിങ്ങൾ എന്തുവാണ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് പോയെ പറ്റത്തുള്ളു കാരണം ഞങ്ങൾ ഫാമിലി ഫുൾ റെഡിയായിട്ട് നിൽക്കുന്നു വണ്ടി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഓൾറെഡി അല്ലെങ്കിൽപ്പിന്നെ ഇന്നലെ പറയാം എന്ന് അല്ലെങ്കിൽ ഇന്നു രാവിലെ ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഒരു വണ്ടിക്ക് വണ്ടി അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തു തരണം നിങ്ങൾ അറേഞ്ച് ചെയ്തുപോലും തന്നിട്ടില്ല ഇത് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല ഡ്രൈവർ ഉറങ്ങിപ്പോവുകയോ ഉറങ്ങി പോവാതിരിക്കുകയോ നമുക്കറിയേണ്ട കാര്യമില്ല നമുക്കിപ്പം അടുത്ത ഡ്രൈവറെ വിട്ടുതരിക നിങ്ങളുടെയാണ് ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ് നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ ആ ഡ്രൈവറിന് വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഞങ്ങളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ നിങ്ങളുതന്നെ എടുക്കുന്നില്ല കാരണം ഡ്രൈവറിൻ്റെ നമ്പർ ആൾറെഡി നിങ്ങൾ അയച്ചുതന്നു ആ ഡ്രൈവർ ആൾറെഡി ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ പിന്നെ നിങ്ങൾ വിളിച്ചല്ലേ പറയേണ്ടത് നിങ്ങൾക്കല്ലേ ഞങ്ങൾ ക്യാഷ് പേ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഡ്രൈവറിനല്ലല്ലോ ക്യാഷ് പേ ചെയ്തിരിക്കുന്നത് നിങ്ങളല്ലേ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ പറയുന്നതുപോലെയല്ല കാരണം എന്നു വച്ചാൽ ഞങ്ങൾക്കിപ്പോൾ പോയെ പറ്റത്തുള്ളു കാരണം എന്നു വച്ചാൽ ഇപ്പോൾ സമയം കഴിഞ്ഞു ഞങ്ങൾക്ക് ആ ഡ്രൈവർ വരണം സമയം കഴിഞ്ഞിട്ടിപ്പോൾ വൺ അവർ കഴിഞ്ഞു അപ്പോൾ അടുത്തത് ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളു നിങ്ങൾക്കിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു വണ്ടി വിട്ടു താ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറ ഞങ്ങൾക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്തു നിങ്ങൾ തരണം നിങ്ങൾക്ക് ഞങ്ങൾ ആൾറെഡി ക്യാഷ് പേ ചെയ്തിട്ടുണ്ട് അതോ ഞങ്ങൾ ലീഗലായിട്ട് ഞങ്ങൾ പോകേണ്ടിവരുമോ അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടിത്തന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി പോകത്തെ ഉള്ളു ഞാനൊരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യാം അത്രേ ഉള്ളു നിങ്ങൾ അടുത്ത വണ്ടി വിട്ടുതരണം അത്രയേ പറ്റത്തുള്ളു എന്താണെന്നു വച്ചാൽ തിരിച്ച് വിളിക്കണം